ആകാശഗംഗ എന്ന് പറയുന്ന ഗാലക്സിയിലുള്ള ഉള്ളവരാണ് നമ്മൾ ഇതുപോലെ അനേകായിരം ഗാലക്സികൾ ഉണ്ടെന്നാണ് പറയുന്നത് അവിടെയൊക്കെ ജീവനുണ്ടോ ഇല്ലയോ എന്നത് നമുക്ക് അറിയില്ല പറഞ്ഞ് ഉള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ കൂടുതലായിട്ട് കുട്ടികള് കാണുന്ന അവരുടെ കാർട്ടൂണുകളും അതില് നിന്നൊക്കെയാണ് കൂടുതല് അങ്ങനെയുള്ള ഐഡിയാസ് വരുന്നത് ഏലിയന്സിനെ കുറിച്ചൊക്കെ പിന്നെ ചില സിനിമകൾ അല്ലാതെ അതിനെ കുറിച്ച് എനിക്ക് അത്ര അറിവോ ഉറപ്പോ ഒന്നുമില്ല